നമ്മുടെ ഇന്ത്യയിലെ ചില പ്രശസ്ത നൃത്ത ശൈലികളാണ് കഥകളി നാടോടി നൃത്തം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഇന്ന് ഇതെല്ലാം നമ്മളിൽനിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെയാണെങ്കിൽ നമുക്കൊരു ഉത്സവം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഈ ഒരു ഇത് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം അടിച്ചുപൊളി പാട്ടുകളും അങ്ങനെയുള്ളതൊക്കെയാണിപ്പം ഇത് നമ്മുടെയിൽനിന്നും ഇതൊക്കെ അന്യമായി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെത്തന്നെ ഇപ്പം സ്കൂൾ പ്രോഗ്രാമുകൾ യൂത്ത് ഫെസ്റ്റിവല്കൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ നമുക്ക് എന്താ മോഹിനിയാട്ടം കുച്ചിപ്പുടി അങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ ഈ കഥകളി അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഇപ്പം തീരെ തന്നെ ഒട്ടും കാണാൻ പറ്റുന്നില്ല അതുപോലെ എന്താ പറയുക നമ്മുടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം ഇപ്പം നമ്മളിന്ന് അന്യമാവുകയാ അതായത് നമ്മൾ ചെറു മക്കൾക്ക് ഇനിയുള്ള തലമുറകൾക്ക് ഒക്കെ തന്നെ ഈ ഒരു ഇത് ഫോണിലൂടെയോ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പം അതിൻ്റെ വേഷവിധാനങ്ങൾ തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൻ്റെയൊക്കെ വേഷവിധാനങ്ങൾ തന്നെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് ഇപ്പം കഥകളും മോഹിനിയാട്ടം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇപ്പം ബ്രേക്ക് ഡാൻസ് പോലെയും അതുപോലെ ഒരുപാട് ലൈറ്റ് സൗണ്ടുകൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്നത് ഇപ്പം നൃത്തം നമ്മുടെ പ്രശസ്ത നൃത്തങ്ങളൊന്നും ഇപ്പം ഒരുപാട് എന്താ പറഞ്ഞേണ്ടെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും ആണ് അതൊന്നും തന്നെ കാണാൻ ഇല്ല അത് നൃത്ത പ്രശസ്ത നൃത്ത മായിട്ട് പ്രശസ്തരായ നൃത്ത ചെയ്യുന്നവർ പോലും ഇപ്പം ഒരുപാട് കുറവാണ് ഇപ്പം കൂടുതൽ ആൾക്കാരെന്താണ് വേറെ നമുക്ക് ജോബ് സാധ്യതയുള്ളതുമായിട്ടൊക്കെയുള്ള അതാണ് കൂടുതൽ തെരഞ്ഞെടുത്ത് പഠിക്കുന്നതും ഒക്കെ ഇപ്പം നൃത്തമൊന്നും അങ്ങനെ ഒരുപാട് പേര് പഠിക്കലും അങ്ങനൊന്നും ഇല്ല ഒന്നു നൂറിലൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം അത്രേ ഒക്കെയേ ഉള്ളൂ ഈ നൃത്തത്തിനോട് ഇപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അല്ലാതെ ആരും തന്നെ ഇപ്പോൾ ബേസായിട്ട് എടുത്തൊന്നും ഇത് പഠിക്കലും പരിപാടികളൊന്നും ഇല്ല അപ്പം നൃത്തം എന്ന് പറയുന്നത് നമ്മളിൽനിന്ന് അന്യതായി പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും ബ്രേക്ക് ഡാൻസും അങ്ങനൊക്കെ ഉള്ളതൊക്കെയാണ് താല്പര്യം തന്നെ ഇപ്പോൾ പണ്ടത്തെ സിനിമകളിലൊക്കെ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഈയൊരു നൃത്തശൈലികളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്താ പിന്നെ നാട്ടിൻപുറങ്ങളിൽ പണ്ടത്തെ ഇപ്പം നാട്ടിൻപുറങ്ങളും എല്ലാം മൊത്തത്തിൽ ചേഞ്ച് ആണല്ലോ ഇപ്പം നാട്ടിൻപുറങ്ങളും അങ്ങനൊന്നും ഇല്ലല്ലോ പിന്നെ വരുന്നത് നമ്മുടെ പ്രശസ്തരായിട്ടുള്ള നർത്തകരെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ നർത്തകരൊക്കെ ഉള്ളൂ ഇപ്പോൾ പുതുതായിട്ട് നർത്തകരൊന്നും തന്നെ ഇല്ല അപ്പോൾ പുതിയ അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളാരും നൃത്ത വിനോദം ഒന്നും ഏറ്റെടുക്കാറില്ല ആ നൃത്തം